ഹലോ വയനാട് റെസ്റ്റോറൻറ്റ്

ആ ട്ര ഇവിടെ ഇപ്പോൾ ട്രഡീഷണൽ ഫുഡ് ആയിട്ട് പിന്നെ കാലും പത്തിരിയും ഉണ്ട് അതുപോലെ പിടിയും കോഴിയും പിന്നെ കുഞ്ഞിപ്പത്തിരി എന്ന് പറയും അതുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് ഐറ്റം ഉണ്ട് നിങ്ങൾക്ക് ഞാൻ മെനു വാട്സ്അപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഫംഗ്ഷൻ നടത്താനായിരുന്നോ ഇവിടുന്ന് ആ ആ ആ അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ വരുന്നത് ആ ടു ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇന്നുതൊ ഏ നാളെത്തൊട്ട് ഒരു മൂന്നുനാല് ദിവസം ഇവിടെ ബുക്കിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അൻ ഇപ്പോൾ ഒരു അഞ്ചാംതീയതി വരാൻ പറ്റുവോ എത്തുവോ ആ അന്ന് മതിയോ ആ നാല് വരെ ഇവിടെ ബുക്കിംഗ് ആണ് ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട് നാല് ദിവസം അപ്പോൾ പിന്നെ വേറെ ഒന്നും വേറെ ഒന്നും എടുക്കുന്നുമില്ല ഇങ്ങോട്ടേക്ക് അപ്പോൾ പിന്നെ അഞ്ചാം തീയതി ആവുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ ചെയ്തുതരാം പിന്നെ നിങ്ങൾ എത്ര ദിവസം ഉണ്ടാവും ഒരു ആഴ്ചയാണോ ആ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെത്തന്നെ സ്റ്റേ ഒരുക്കണോ സ്റ്റേ ചെയ്യാൻ സൗകര്യം ഒരുക്കണോ ആ ഇവിടെ ഉണ്ട് റെസ്റ്റോറൻറ്റിന് തന്നെ ഒരു പിന്നെ ഒരു ഇതുണ്ട് ഒരു ഒരു ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ ഒരു ഉണ്ട് ഒരു ഒരു സ്ഥലത്ത് ഇവിടെ തൊട്ടിപ്പുറത്തുതന്നെ റെസ്റ്റോറൻറ്റിന് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെത്തന്നെ സ്റ്റേ ചെയ്യാം അപ്പോൾ കുറച്ച് റെൻറ്റ് കുറച്ച് കൂടും അത് നിങ്ങൾ പ്രശ്നമുണ്ടോ റെന്റ് ഇപ്പോൾ ഒരു ദിവസത്തിന് നാലായിരം രൂപയാണ് വരുന്നത് അപ്പോൾ നാല് ദിവസത്തിനെന്ന് പറയുമ്പം ഒരു പതിനാറായിരം രൂപയാവും ആ ഫുഡ്ഡിന് വേറെ ആയിരിക്കും ഫുഡ്ഡിന് അപ്പോൾ നിങ്ങൾക്ക് റൂം വേണോ റൂമിന് കുറച്ച് കൂടുതൽ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണോ

ആ ഓക്കേ ഓക്കേ ആ